ഞാൻ കഴിഞ്ഞ വർഷം ജോക്കർ ആൻഡ് വിച്ചിൻ്റെ ഒരു വാച്ച് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓർഡറിൽ എനിക്ക് നല്ല ആ ഞാൻ നല്ല തൃപ്തിയായിരുന്നു അതിൽ നല്ല വാച്ച് ആയിരുന്നു അതിൻ്റെ ഡയൽ ആയാലും അതിൻ്റെ ചെയിൻ ചെയിൻ വാച്ച് ആയിരുന്നു അതൊരു ഒരു റോസ് ഗോൾഡ് കളറിൽ ഉള്ളതായിരുന്നു കളർ ഒന്നും അധികം എപ്പോഴും അങ്ങനെ പോകുന്നതല്ല ഞാനൊരു എട്ട് മാസത്തോളം അത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ബാറ്ററിക്ക് ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് വാങ്ങിയപ്പോൾ അറുനൂറ് എന്തോ അടുപ്പിച്ചായി എമൗണ്ട് ഓർമയില്ല അപ്പോൾ അന്ന് നല്ലതായിരുന്നു വാച്ച് അത് അതിന് ശേഷം ഞാൻ ബാറ്ററി ഇട്ടിട്ട് ഒരു കുറച്ച് നാൾ കൂടെ ഞാൻ ഉപയോഗിച്ചിരുന്നു നല്ല വാച്ച് ആയിരുന്നു അതിന് ശേഷം ബാറ്ററി മാറ്റിയിടുന്നതിനേക്കാളും പുതിയ വാച്ച് ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ സെയിം സാധനം തന്നെ ഞാൻ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് വീട്ടിൽ കൊണ്ട് വന്ന് ഞാൻ അത് തുറന്ന് നോക്കിയപ്പോൾ പ്രോഡക്റ്റ് കുറച്ച് ഡാമേജ് ഉള്ളതായിരുന്നു അതിൻ്റെ ചെയിൻ കുറച്ച് പൊട്ടിയാണ് ഇരുന്നത് പിന്നെ എനിക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റിയില്ല അത് റിട്ടേൺ റിട്ടേണബിൾ അല്ലായിരുന്നു അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കടയിൽ കൊണ്ട് കൊടുത്ത് നോക്കി അതൊന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ ശരിയാക്കാൻ പറ്റാത്ത വിധം അത് പൊട്ടിയിരുന്നു പക്ഷേ അതിന് ഈ പ്രോഡക്റ്റിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒന്നും ഇങ്ങനെ ഇതിന നെഗറ്റീവ് പ്രോഡക്റ്റ് ആണ് എന്നുള്ള ഒരു ഇതൊന്നും ഞാൻ കണ്ടില്ല അതുകൊണ്ട് ആദ്യം ഞാൻ വാങ്ങിയപ്പോൾ നന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ വാങ്ങിയത് അപ്പോഴും ആദ്യം വാങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു രണ്ടാമത് വാങ്ങിയപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആദ്യം വാങ്ങിയത് നന്നായിരുന്നു രണ്ടാമത് വാങ്ങിയപ്പോൾ അതിന് നല്ല ഡാമേജ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അത് ഉപയോഗിച്ചില്ല അത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ആയിപ്പോയി